കൊറോണയ്ക്ക് ശേഷം ഏറ്റവും പടർന്നു പന്തലിച്ചത് വിനോദസഞ്ചാര മേഖലയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും ടൂറ് പോകാനാണിഷ്ട്ടം കുട്ടി എന്നില്ല വലിയവര് എന്നില്ല പ്രായമായവരില്ല ഏത് തൊഴിൽ മേഖലയിലുള്ളവരായാലും ഇന്ന് ടൂറ് പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് കേരളത്തിലും വിനോദസഞ്ചാരികൾക്ക് വലിയ വലിയ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഒരുക്കി വച്ചിട്ടുള്ളത് അതിലേറ്റവും വലുതാണ് പാട്ടുപാടാനും സംഗീതം ആസ്വദിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ അത് പല പല ബാറുകളിലും പല പല ഹോട്ടലുകളിലും എല്ലാം ഇന്ന് അവൈലബിളാണ് ഒരു കൂട്ടുകാരാന്റെ കൂടെ പണ്ടുള്ളൊരു തിരുവന്തപുരത്തെ ഒരു റാവിസ്സ് കോവളം എന്ന് പറയുന്നൊരു ഹോട്ടലിൽ പോയത് ഞാനിപ്പോഴും ഓർക്കുന്നു അവിടെ രാത്രി എട്ടുമണിയൊക്കെ ആയപ്പോൾ ആ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ വിനോദസഞ്ചാരികളെയും ഒരുമിച്ചൊരു ഹോളിൽ വിളിച്ചിരുത്തി പാട്ടുപാടാൻ അല്ലെങ്കിൽ അവിടെ ഡാൻസ് കളിക്കാൻ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അന്ന് അതൊരു കൗതുകമായി തോന്നി ഒരു പരിചയം ഇല്ലാത്ത ഒരുപാട് പേരൊത്ത് ഡാൻസ് കളിക്കുക പാട്ട് പാടുക അതൊക്കെ ഒരു രസമല്ലേ അല്ലേ അതുപോലെ പിന്നീട് അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഹോട്ടലുകൾ തിരുവന്തപുരത്തും കേരളത്തിൽ മുഴുവനും ആയിട്ടും ഉണ്ടെന്ന് മനസ്സിലായി റോക്ക് ആൻഡ് റോസ് ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് അങ്ങനെ ഇതുപോലെ ഹോട്ടലുകളിൽ വന്ന് പ്രോഗ്രാംസ്സ് ചെയ്യുന്ന ബാൻഡുകള് വരെ ഉണ്ട് എന്നത് അത്ഭുതകരമായി തോന്നി ഇതുപോലെയും ഈ പണി എടുത്തും കുറെ പേര് ജീവിക്കുന്നുണ്ട് എന്തായാലും ഇത് നമുക്കൊരു നല്ല അനുഭവമാണ് ഒരുപാട് സമയം നമുക്ക് അങ്ങനെ മതിമറന്നിരുന്ന് ഒന്ന് റീലാക്സ്ഡ് ആവാൻ ഇത് നമ്മളെ സഹായിക്കും പിന്നെ ടൂറിസം എന്നു പറയുമ്പോൾ പണ്ടത്തെ പോലെ സ്ഥലങ്ങള് കാണലും അലഞ്ഞു തിരിയലും ഒന്നും അല്ല നമ്മളൊരു ശാന്തമായ സ്ഥലത്ത് റൂമെടുക്കുന്നു താമസിക്കുന്നു അവിടെയുള്ള കാര്യങ്ങൾ ആഘോഷിക്കുന്നു അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു അതിലൊന്നാണ് ഈ പറഞ്ഞ അസറും അത് നല്ലപോലെ വിനിയോഗിക്കാ എന്നത് ഏതൊരു വിനോദസഞ്ചാരിയുടേം കടമയാണ് നമ്മൾ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ ഒരുപാട് പേര് പരിചയമില്ലാത്തവര് ഉണ്ടാവും അവിടെയൊന്നും പോയി ബഹളം വയ്ക്കുക എന്നത് ഒന്നും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്കു തോന്നില്ല ഇതെല്ലാം നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ് അത് നമ്മള് ആസ്വദിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ ആസ്വദിക്കാൻ അനുവദിക്കുക എന്നതും പ്രാധാന്യമുള്ളത് തന്നെയാണ് നമുക്ക് ഇഷ്ടമല്ലാത്തതൊന്നും അവിടെ നടക്കണ്ട എന്നു പറഞ്ഞ് പണ്ടൊരിക്കൽ ഞാൻ താമസിച്ചിരുന്നൊരു ഹോട്ടല് മുറിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെപ്പറ്റി എനിക്ക് ഇപ്പോൾ ഓർമ്മ വരിക നമുക്ക് ആസ്വദിക്കാനുള്ള കഴിവില്ല എന്നുമാത്രല്ല മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുക കൂടിയില്ല എന്നു പറയുമ്പോൾ കഷ്ടം തന്നെയല്ലേ